ഞങ്ങളുടെ പ്രദേശത്ത് എന്തോ ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട് കേട്ടോ എന്നു വച്ചാൽ കുറേ നല്ല ആൾക്കാരുണ്ട് നമ്മളെ ഒരുപാട് നമ്മളെ നാടിന് സഹായം ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇടുക്കിയുടെ ജില്ല സെക്രട്ടറിയും എൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്ത് കുറച്ച് എന്നു വച്ചാൽ ഒരു പത്ത് മിനിറ്റ് അത്രയൊക്കെ മതി അവിടെ താമസിക്കുന്ന അതുപോലെ കുറേ ആൾക്കാരുണ്ട് ആ പുരയിൽത്തന്നെ എൻ്റെ ഫാദറ് ഒരു പാർട്ടി പ്രവർത്തകനാണ് അപ്പം ഒരു പൗരനെന്ന ഈ നിലയിൽ അവരെങ്ങനെ സഹായിച്ചിട്ടുള്ളതെന്ന് വച്ച് കഴിഞ്ഞാൽ എന്നെ സഹായിച്ചതിലുപരി ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഫാമിലീനെ അല്ലാണ്ട് ഒരുപാട് ആൾക്കാരെ ഫിനാൻഷ്യലി ആയിക്കോട്ടെ എല്ലാ കാര്യത്തിലും ആ ഒരു സൊസൈറ്റിയിൽ സ്റ്റേബിളാക്കി നിർത്താൻ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ വീടില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കുക അല്ലെങ്കിൽ അവർക്കുള്ള സ്ഥലത്ത് വീട് വച്ച് കൊടുക്കുക ഇപ്പോൾ ഒരു ആരോഗ്യപ്രശ്നം വന്ന ഒരാൾ ഒരു ഹോസ്പിറ്റലിലായി കഴിഞ്ഞാൽ മാക്സിമം പറ്റാവുന്ന അത്ര ഹെൽപ്പിങ്ങ് ഫിനാൻഷ്യലി അവരെ സ്റ്റേബിളാക്കും അതാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നൊരു കാര്യം പിന്നെ അവിടുത്തെ ഹോസ്പിറ്റലുകളിലോട്ടൊക്കെ നല്ലൊരു തുകതന്നെ അവർ സംഭാവന ചെയ്യുന്നുണ്ട് കാൻസർ പേഷ്യൻസിന് ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് കിഡ്നി ഫെയ്ലീയർസ് വരുന്ന പേഷ്യൻസിന് ഡയാലിസിസ് ഫ്രീയായിട്ട് എല്ലാ ആഴ്ച്ചയും ഡയാലിസിസ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നു അതുപോലെതന്നെ ഒരു ബ്ലഡ് കൗണ്ടറ് തന്നെ ഉണ്ട് അവർക്ക് ഒരുപാട് ആൾക്കാരൊക്കെ നല്ല രീതിയിൽ സഹായം തരാൻ വേണ്ടിയിട്ടൊക്കെ അവർക്കൊരുപാട് ഒരുപാട് ഒരുപാട് ഹെൽപ്പ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് അപ്പം ഈ അവർ എന്നെ എങ്ങനെ സഹായിച്ചു എന്നു വച്ചാൽ എൻ്റെ എജ്യൂക്കേഷനിൽ അവർ ഒരു കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം എന്നെ എജ്യൂക്കേഷൻ വഴി സ്ലോട്ട് വരുമ്പം പഠിക്കാനായിട്ടാണെങ്കിലും ഒരുപാട് പ്രോത്സാഹനം ഒക്കെ പ്രോത്സാഹിപ്പിക്കയും സമ്മാനങ്ങൾ തരികയും ഇപ്പം എന്തെങ്കിലും പഠിക്കാനൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനൊക്കെ സഹായിക്കുകയും അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്